ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്താ പറയുക മതപരമായിട്ടുള്ള ചടങ്ങുകള് ഒരുപാടുണ്ട് ഇപ്പോ എന്താ പറയുക മെയിനായിട്ട് ഈ ഭാഗത്ത് ഹിന്ദു അല്ലെങ്കി മുസ്ലിം മതത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത് ഹിന്ദു മതത്തിന്റെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങൾ ഇപ്പോ അമ്പലത്തില് എന്താ പറയുക പൂജകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വഴിപാട് നോക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ പുഷ്പാഞ്ജലി വരും പിന്നെ മുട്ടറക്കല് വരും പിന്നെന്താണ് പ പായസം അത്പോലെ നിവേദ്യം കൊടുക്കുക അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അമ്പലത്തില് വരിക പിന്നെ അതില് വേറെ നമുക്ക് തീർത്ഥാടനം പോലെ വരുന്നതാണെങ്കിൽ നമ്മുടെ ശബരിമലയ്ക്ക് വ്രതം എടുത്തു പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അത് മണ്ഡല മാസത്തിലാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഈ മുസ്ലീംങ്ങളുടെ കൂടുതലായിട്ട് നോക്കാന്ന് പറയുമ്പോൾ അവരുടെ പള്ളിയിലെ പെരുന്നാൾ വരും പിന്നേ അവരുടെ വ്രതം എല്ലാ വർഷവും ഉള്ളതുപോലെ റംസാൻ മാസത്തിന്റെ വ്രതം വല്ല്യ പെരുന്നാള് ചെറിയ പെരുന്നാള് അങ്ങനത്തെ കാര്യങ്ങള് അതൊക്കെയാണ് നമ്മള് മെയിനായിട്ട് നമ്മുടെ മതപരമായിട്ടുള്ള ചടങ്ങുകള് പിന്നെ ക്രിസ്ത്യാനികളുടെ നോക്കാണെന്ന് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചയും അവര് പള്ളിയിൽ പ്രാർത്ഥനകള് വരുന്നുണ്ട് പിന്നെ അവർക്ക് പള്ളിയില് ചടങ്ങ് അല്ലെങ്കി വലിയ ആചാരം എന്ന് പറയണത് ഈ ക്രിസ്മസിൻ്റെ അങ്ങനത്തെയാണ് വരുന്നത് പിന്നെ വിരുന്ന് കൊടുക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഇതില് വരുന്നത്